അതെ അതെ

എന്നത്തേക്കായിരുന്നു

ആ എന്ത് ഏതാണ്

എവിടെ ആണ് കൊടുക്കേണ്ടത് നാളെ ഒരു ഇരുനൂറെണ്ണം കുറവാണ് കേട്ടോ ഞാൻ ബട്ടർസ്കോച്ച് വെച്ചാലോ

ഓ ഒരു ഒരു മെഷീനേ കേടായി കിടക്കുവായിരുന്നേ അതാണ് സംഭവിച്ചത് ആ ആ ആ ഞാൻ പുറത്ത് വേറെ മേടിച്ചോളാം മേടിച്ച് തരാം അറേഞ്ച് ചെയ്തോളാം ആ ആ അപ്പം വേറെ ആ കുറവുള്ളത് മേടിച്ച് തരുന്നതിന് വേറെ എക്സ്ട്രാ തരേണ്ടി വരുവേ

ആ സാറേ അപ്പോൾ പുറത്തുനിന്ന് മേടി പുറത്തുനിന്ന് മേടിക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ലാഭമൊന്നും ഇല്ല വലിയ ബെനിഫിറ്റ് ഒന്നും ഇല്ല

ആ ഓക്കെ കുഴപ്പമില്ല നാളെ എത്തിച്ചോളാം ഓക്കെ ആ ഓക്കെ